നമ്മുടെ പ്രദേശത്തെ പിന്നെ കലാരൂപങ്ങളായിട്ട് നമുക്ക് എന്നാ കലാരൂപങ്ങളല്ലാതെ നമ്മുടെ ഇവിടെ വഞ്ചിപ്പാട്ട് അങ്ങനെ ബന്ധപ്പെട്ട വഞ്ചിപ്പാട്ട് മേഖലകളാണ് വഞ്ചിപ്പാട്ടിൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പിന്നെ ആറന്മുള വച്ച് പാട്ട് അങ്ങനെ വഞ്ചിപ്പാട്ടുവായിട്ട് ബന്ധപ്പെട്ട് മേഖലകളാണ് കൂടുതലും പിന്നെ മുൻകാലങ്ങളിൽ കരകൗശല മേഖലകളിലുമായി ബന്ധപ്പെട്ട് നമുക്ക് കരകൗശലമല്ലെങ്കിൽ നമ്മുടെ ആർ പിന്നെ ഈ നാടൻ പാ തഴപ്പാ അങ്ങനെ ഉള്ള പാമേത്തുക്കാരൊക്കെ ഉണ്ടായിരുന്നു അതു ആയിട്ട് അതൊക്കെ നമുക്ക് കാ കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ അദൃശ്യമായൊരു മേഖലയാണ് ക പിന്നെ കരകൗശലമായിട്ട് നമുക്ക് വ വലിയ ചെറിയ ഓ ഈ ക വള്ളങ്ങൾ ആ ചെറിയ ചുണ്ടൻ വള്ളങ്ങളുടെ മോഡലുകളൊക്കെ ഉണ്ടാക്കുന്നവരുമായി ബന്ധപ്പെട്ട് ആ അറിയാവുന്ന ആ അറിയാൻ അറിയാൻ സാധിക്കുന്നുണ്ട് പിന്നെ തഴപ്പ പിന്നെ പിന്നെ ഉള്ളത് നമ്മുടെ തുഴ പനയുടെ പോ പുറംതോട് ചെത്തി ഉണ്ടാക്കുന്ന തുഴ നമുക്ക് പരിചിതമാണ് ആ ഇങ്ങി ഇങ്ങനെ ഉള്ള മേഖലകളാണ് ഈ ബന്ധപ്പെട്ട് ഈ മേഖലകളിൽ കാണുവാൻ സാധിക്കുന്നത്